ചിത്രരചന ആളുകൾക്ക് രോഗശാന്തി നൽകുന്നോ പ്രയോജനകരമാവുന്നുണ്ടോ എന്നൊക്കേ ഞാൻ കരുതുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിത്രരചന ഒരു പാഷനാക്കി എടുത്തോർക്ക് അതായത് ചിത്രോക്കെ വരച്ചോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരസുഖമോ അങ്ങനെയൊക്കെ വരുമ്പം അതായത് അവരവർടെ പാഷൻ കൈവിടാതെ അതായത് പിന്നെ വേറൊരു ചിന്തേം ചിന്തിക്കാതെ നമ്മൾ പല പല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെയൊക്കെ നമ്മൾ നമ്മളിപ്പം ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതു തന്നെ ചിന്തിച്ചോണ്ടിരിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നേം ആ രോഗം കൂടി കൂടി വരും അതായത് ക്ഷീണോം കൂടി കൂടി വരും അപ്പോൾ അത് ചിന്തിക്കാണ്ട് നമ്മൾ ഓരോ പ്രവർത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽത്തന്നെ നമുക്ക് പകുതി അസുഖവും മാറും പിന്നെ ഒരു കലാകാരനാകാൻ വ്യക്തിയെന്ന നിലയിൽ ആർജിച്ച ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അച്ചടക്കം വേണം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കാടകക്കഴിവുകൾ അതായത് നമ്മൾ ആൾക്കാരോടൊക്കെ നല്ലോണം പെരുമാറണം അതായത് പെരുമാറുക അതായത് കമ്മ്യൂണിക്കേഷനൊക്കെ നന്നായി നന്നായിരിക്കണം പിന്നെ നമുക്ക് ഭാവനയുണ്ടായിരിക്കണം അതായത് നമ്മൾ ചിത്രം വരക്കുന്നേനെക്കുറിച്ച് പല പല ഭാവനകൾ അതായത് നമുക്ക് എന്ത് ജോ ഇത് വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് വരയ്ക്കാൻ പറ്റണം അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വേണ്ട ഗുണങ്ങൾ